ഹലോ ഹലോ ആരാണ് വിളി ആ ആരാണ് വിളിക്കുന്നത്

എത്ര പേരുണ്ട് മൂന്ന് പേരുണ്ട് എപ്പോഴാണ് പോവേണ്ടത്

പിന്നെ എന്താണ് ആറരയ്ക്കോ ആറിനോ ഏത് സമയത്തും വരാം

പോയി വരുന്നതിന് അവിടെ പോയി വരുമ്പോൾ പത്തറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ ഉണ്ട് പത്ത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയോളം ആവും

പിന്നേ ഞാൻ എന്നും പോയിക്കൊണ്ടിരിക്കും മിക്കവാറും ഒക്കെ പോവും അവിടെ വാട്ടർഫാൾസ് ഒക്കെ കാണാൻ ആൾക്കാർ പോകുന്നുണ്ട് എന്നെ വിളിച്ചുകൊണ്ടൊക്കെ പോവും ആ ആ അത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലയോ അത് മീറ്റർ ഇട്ട് ഓടാം കുഴപ്പമില്ല അതിൽ കുറയും റോഡിനൊന്നും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾ അല്ലല്ലോ ഓടിക്കുന്നത് ഞാൻ അല്ലയോ ഓടിക്കുന്നത് നിങ്ങൾ അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി റോഡിനൊന്നും കുഴപ്പമില്ല ഹലോ ആ ഓക്കെ ഏഴ് മണിക്ക് മുമ്പേ പോകാം ഇടയ്ക്ക് എവിടെയെങ്കിലും കയറുന്നുണ്ടോ ആ ആ കുഴപ്പമില്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചോളൂ ഞാനും ക ഞാനും കഴിച്ചോളാം ഹോട്ടലിൽ നിന്ന് ആ എല്ലാം ഒരു കുഴപ്പവുമില്ല കൊണ്ടുപോകാം കൊണ്ടുപോകാം ഹോട്ടലിൽ നിന്ന് ആഹാരവും എല്ലാം സമയത്ത് വാങ്ങാം സമയത്ത് നിർത്താം ആ കാലാ കാലാവസ്ഥ നാളത്തെ കാര്യം നമുക്ക് അറിയില്ല

ഏ അത് ആ ഓക്കെ രാവിലെ രാവി രാവിലെ വരാം എല്ലാം കാ കാണിക്കാം ഒരു കുഴപ്പവുമില്ല ഓക്കെ ഓ ഓക്കെ ഓക്കെ ശരി ശരി